നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സാധനമാണ് എന്തൊരു എക്സസൈസെന്നു പറയുന്നത് നമ്മള് എത്ര വിറ്റമിൻ കുറവ് അതുപോലുള്ള കുറേ കാര്യങ്ങള് നമ്മള് ഡെയിലി ലൈഫില് നമ്മള് അനുഭവിക്കണ ഒരു രോഗമെന്നല്ല ഇതില്പ്പെട്ട ഒരു സാധനമുണ്ട് വിറ്റാമിൻ കുറവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരുതരത്തില് തടി കൂടുക അങ്ങനെയുള്ള സാധാരണ നമ്മൾ ഡെയിലി ലൈഫില് കുറേ മിക്കവാറും ആളുകള് അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് അപ്പോള് സ്വാഭാവികമായും ഡോക്ടർമാരൊക്ക ഇതിന് ഏറ്റവും കൂടുതല് പ്രിഫറെയ്യല് നല്ല എക്സർസൈസ് ചെയ്യണം എന്നുള്ളതാണ് ഈ എക്സസൈസില് തന്നെ ഏറ്റവും കൂടുതൽ ആളുകള് പറയുന്നത് പറയുന്ന സംഭവം സൈക്ലിങ്ങ് അതുപോലെ തന്നെ റണ്ണിങ് ഈ മോർണിങ് വാക്ക് ഈവനിംഗ് വാക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ അപ്പോള് ഈ മോർണിംഗ് വാക്ക് നമ്മളെ ശരീരത്തിനു നല്ല നല്ല രീതിയില്ത്തന്നെ എഫെക്ട് ചെയ്യും നല്ല നല്ല രീതിയിൽ എഫെക്റ്റ് ചെയ്യും ബാഡായിട്ടല്ല നല്ല രീതിലെന്തെയ്യും എഫക്റ്റ് ചെയ്യും ശരീരത്തിൻ്റെ ശരീരത്തിനെ ഒന്നുകൂടി ഒന്ന് ജീവിപ്പിക്കുക ജീപ്പിക്കാൻ മീൻസ് അതു കുറച്ചുകൂടി എനർജി കൂട്ടാന് അതുപോലെ തന്നെ എന്തിന് നമ്മളെ ഒരു കോൺഫിഡൻസ് കൂടാന് അതുപോലെ തന്നെ സൈക്കോളജി സൈക്കോളജിക്കലി ആൻഡ് സയന്റിഫിക്കലി രണ്ടു രീതിയിലും പിന്നെ മെഡിക്കലി ഈ രീതിയിലൊക്കെ എന്തെയ്യും നമുക്ക് മോർണിംഗ് വാക്കിന് അതുപോലെ തന്നെ റണ്ണിങ്ങിനൊക്കെ വളരെ നല്ല രീതിലെന്തെയ്യും ഇത് ഇതു നമുക്ക് ഉപകാരപ്പെടും സ്വാഭാവികമായിട്ട് നമ്മള് എങ്ങോട്ടേലും പോവുമ്പോള് കാണുന്നതൊക്കെയാണെന്ത് റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ ഹൈവേകള് ഇവിടൊക്കെ ഇത് വയസ്സായ ആൾക്കാര് അതുപോലുള്ള ആൾക്കാരൊക്കെ എന്തിനാണ് അത് ഓടാന് അത് അത് ഈ മോർണിംഗ് വാക്ക് ഈവനിങ് വാക്കിനൊക്കെ വരുന്നതു നമ്മള് സ്വാഭാവികായിട്ടും കാണുന്നതാണ് അപ്പോള് ഇതിനു കുറേ ഉപകാരങ്ങൾ കൂടിയുണ്ട് അത് ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായ ഒരു സാധനമാണ് കാരണം എന്താണെന്നുവച്ചാല് ഇത് ഹൃദയാരോഗ്യ ഹൃദയ സംബന്ധമായ രോഗങ്ങള് അതുപോലെ തന്നെ ഹൃദയാഘാതം രക്തസമ്മർദ്ദം ഇതൊക്കെ കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് എന്ത് ഈ ഒരു മോർണിംഗ് വാക്കെന്നു പറയുന്ന ഒരു സംഭവം അതുപോലെ തന്നെ മനസ്സിനു നല്ല ശാന്തിയും ഉണർവൊക്കെ ലഭിക്കുന്ന സൈക്കോളജി പ്രകാരം നോക്കുമ്പോള് ഇങ്ങനെയൊരു ഉപകാരം കൂടി ഉണ്ട് അതുപോലെ തന്നെ ഭാരം കുറയ്ക്കാന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് റണ്ണിങ് എന്നുള്ളത് ഒരു ദിവസം മുപ്പത് ടു നാല്പത്തിയഞ്ച് മിനിറ്റ് നടന്നവര് എന്തെയ്യും നമുക്കു ശരീരത്തിൻ്റെ ഭാരം നല്ലതു പോലെ നമുക്കെന്തെയ്യും കുറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ ത്വക്ക് ആരോഗ്യം നല്ല കാരണം ത്വക്ക് നമ്മള് സ്കിന്നിനൊക്കെയായിട്ടും നല്ലതാണ് കാരണം നല്ല രാവിലെ തന്നെ ഒരു നല്ലൊരു വായുവൊക്കെ നമ്മള് എന്തെയ്യാണ് നമുക്ക് കിട്ടുകയാണ് ഇതിനൊരു ഇതിന് ഉദാഹരണമായിട്ടൊരു നല്ലൊരു ചൊല്ലുണ്ട് എന്നുവച്ചാല് നല്ല ദിവസത്തിനു തുടക്കം നൽകാൻ നിങ്ങളുടെ കാലുകളെ വിശ്വസിക്കൂ ദിവസം നിങ്ങളുടെ കൂടെ നടക്കട്ടെ എന്നുള്ളൊരു ഒരു ചൊല്ലൊക്കെ നമുക്കെന്തെയ്യും ഈ ഒരു വിഷയത്തിൽ നോക്കുകയാണെങ്കില് നമുക്കു കാണാൻ സാധിക്കും പിന്നെ അതുപോലെ നമ്മള് കുറേ ആളുകള് ഹൈവേയിലൂടെ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഇതുപോലെയുള്ള സാധനമൊക്കെ എന്തെയ്യ്ണ്ട് സ്ഥലങ്ങളൊക്കെ ഈ ഒരു മോണിംഗ് വാക്കിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തലുണ്ട്